ശരീരഭാരം കൂട്ടാൻ വേണ്ടി പൊതുവേ നാടുകളിൽ ഉപയോഗിക്കുന്നത് ആര്യ വൈദ്യശാലയിൽ ലഭിക്കുന്ന ചില ലേഹ്യങ്ങൾ അജമാംസ രസായനം എന്ന് പറഞ്ഞ ലേഹ്യം തെങ്ങിൻ പൂക്കുല ലേഹ്യം ഇത് ഉപയോഗിക്കാറുണ്ട് അതിൽ അതിൽ പുറമെയായിട്ട് നമ്മൾ പൊതുവേ ശരീരഭാരം കൂടുന്നത് നമ്മളെ ശരീരത്തിൽ കൊഴുപ്പടഞ്ഞ് കുടുമ്പോഴാണ് ശരീരഭാരം കൂടുന്നത് അപ്പം ഈ കൊഴുപ്പട കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ചോറ് കപ്പ മണ്ണിലൂടെ വളരുന്ന സാധനങ്ങൾ സാധനങ്ങൾ കഴിക്കുക ഇറച്ചി സാധനങ്ങൾ കൊളസ്ട്രോൾ അധികം അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കൊഴുപ്പ് അധികം അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കഴിച്ചാൽ നമ്മൾ ശരീരം വേഗം ഭാരം വെക്കും പഞ്ചസാരയുടെ അമിത ഉപയോഗം കൂടുന്നവർക്ക് ശരീരത്തിൽ പെട്ടെന്ന് ഭാരം വെക്കാൻ സഹായിക്കും അതുകൂടാതെ തന്നെ നിത്യേന നമ്മൾ ഉഴുന്ന് ഉഴുന്ന് ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ പയറുകൾ ഉപയോഗിച്ചിട്ടുള്ള ചെറുപയർ മൺപയർ മുതിര കടല എന്നിവ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കഴിക്കുമ്പോളും ശരീര ഭാരം വർദ്ധിക്കാവുന്നതാണ് പിന്നെ ഇറച്ചി ഇറച്ചിയുടെ വർഗത്തിൽ പെട്ട ആടി ഇറച്ചി പോത്തിറച്ചി ഇത് കഴിക്കുമ്പോഴും ശരീരഭാരം കൂട്ടുന്നതാണ് അത് കൂടാതെ നമ്മുടെ പച്ചക്കറികൾ ചേന ചേമ്പ് കാച്ചിൽ കൂർ കൂർക്ക എന്നിവ ഉപയോഗിച്ചും ഭക്ഷണ പാകം ചെയ്യുന്നത് ആ ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും നമുക്ക് ആരോഗ്യം കൂടാൻ അഥവാ ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ചോറ് അധികം കഴിക്കുന്നതല്ല പച്ചരി ഐറ്റം പച്ചരി സാധനങ്ങൾ അധികം കഴിക്കുമ്പോഴും കൂടാൻ സഹായിക്കുന്നതാണ്